ഒന്ന് അഞ്ച് രണ്ടായിരത്തി രണ്ട് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തഞ്ച് പതിനൊന്ന് നാല് രണ്ടായിരത്തി ആറ് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അഞ്ച് ആറ് രണ്ടായിരത്തി ഏഴ്